ഞാൻ ഒരുപാട് നാണയങ്ങളും അതുപോലെ നോട്ടുമൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ച് വെക്കുമായിരുന്നു അതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്ക് സ്കൂളുകളിൽ എക്സിബിഷൻ ഉണ്ടാകും അപ്പോൾ എത്ര നമുക്ക് നമ്മുടെ കയ്യിലിപ്പോൾ എത്ര നാണയങ്ങളുണ്ടോ അതൊക്കെ നിരത്തി എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ നാണയങ്ങളും തോ നോട്ടുകളൊക്കെ ശേഖരിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഡോളർ അമേരിക്കയിലൊക്കെ ഡോളർ പിന്നെ റിയാൽ പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാടൊരുപാട് നാണയങ്ങളും നോട്ടുകളൊക്കെയുണ്ട് അപ്പോൾ ഇവിടെത്തന്നെയാണെങ്കിൽ തന്നെ ഒരോ ഇപ്പോൾ അഞ്ചുരൂപ അഞ്ചുരൂപ അതുപോലെ കഴിഞ്ഞ പത്തു പൈസ പിന്നെ അൻപത് അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ എന്നീ ഓക് എന്നിങ്ങനെയുള്ള നാണയങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ അത് വേറെ ഒരു ഒ ഓ ഇപ്പോൾ പഴയ നോട്ട് പഴയ നാണയങ്ങളുണ്ട് എന്നാൽ ഇന്നത്തെ ഇന്ന് ഒരു ഒരു രൂപ നാണയം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഒരു ചെറിയ നാണയമാണ് അപ്പോൾ അത് പണ്ടുണ്ടായിരുന്നത് ഒരു രൂപ നാണയം അത് വലിയ നാണയമാണ് അതുപോലെത്തന്നെ ഇന്ന് ഇരുപ ഇരുപത് രൂപ നോട്ടൊന്നും കാണാനില്ല അപ്പോൾ ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു ഇരുപത് രൂപയുടെ നോ നാണയം തന്നെ എനിക്ക് കിട്ടിയത് ഞാൻ ഇപ്പോൾ ശേഖരിച്ചിട്ടു എവിടെയും കൊടുക്കാതെ ഇങ്ങനെ ഒരുപാട് നാണയങ്ങൾ ഞാൻ ശേഖരിച്ചു വെക്കുമായിരുന്നു ഇതിന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓർമയാ നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടം കൂടി നമുക്ക് ഓർമ്മ വരും നമ്മൾ അൻപത് പൈസ ഒക്കെ കൊടുത്തിട്ട് ഇപ്പം മിഠായിയും അതൊക്കെ വാങ്ങാറുണ്ട് എന്നാൽ ഇന്ന് അൻപത് പൈസ ഒന്നും എടുക്കാറില്ല ഇപ്പോൾ ഒരു രൂപ ഒരു രൂപയ്ക്കാണ് മു മിഠായികളൊക്കെ കിട്ടികൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അൻപത് പൈസയും ഇരുപത്തിയഞ്ച് പൈസയൊന്നും നിലനിൽക്കുന്നില്ല അതിനൊരു മൂല്യവും ഇന്നില്ല